പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് എണ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എണ്പത്തിയേഴ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ്